ഹലോ ഹലോ എയ്ഞ്ചൽ ട്രാവൽസല്ലേ ഞാനിവിടെ ചമ്പക്കുളത്തേന്നാണ് വിളിക്കുന്നത് ഞാൻ വിളിച്ചത് ഞങ്ങൾക്കൊരു കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് ചെന്നൈയിലേക്കൊന്നു പോകാൻ വേണ്ടിയായിരുന്നു അപ്പം ബൈ റോഡ് പോകാൻ വേണ്ടീട്ടാണ് അപ്പം ഒരു ഞങ്ങൾ നാല് പേരുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു കാറ് ബുക്ക് ചെയ്ത് അതിന് വേണ്ടീട്ടാണ് വിളിച്ചത് അപ്പതിൻ്റെ റെയിറ്റും കാര്യങ്ങളുവൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്നറിയിക്കണം പിന്നെ എത്ര സീറ്റുള്ള വണ്ടിയാണ് നാല് പേരുടെ സീറ്റിൻ്റെയാണോ അതോ ആറ് പേരുടെ സീറ്റിൻ്റെയാണോ ഇപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം നാല് പേരിൻ്റെ എങ്ങനെയാണിപ്പം ആറ് പേരുടെതാണെങ്കിൽ അതിന്റേം കൂടെ റെയിറ്റെങ്ങനെയാകും അതൊന്ന് കംപെയർ ചെയ്ത് വേറെ ആളുകളുണ്ടെങ്കിൽ അവരേം കൂടെ ഉൾപ്പെടുത്താമല്ലോ അപ്പം അത് രണ്ടിൻറ്റെം തന്നെ റെയ്റ്റ്കൾ ഒന്ന് അറിയിക്കുക എത്രയും പെട്ടന്നൊന്ന് അറിയിക്കണം ഞങ്ങൾക്ക് ഇവിടുന്ന് നാളത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കിന്നത് നാളെ വൈകുന്നേരത്തേക്ക് അപ്പോൾ ആ സമയത്ത് വണ്ടി ഫ്രീയായിട്ടുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെയാണതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എത്രയും പെട്ടന്നൊന്ന് അറിയിക്കുക അതനുസരിച്ച് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടീട്ട് അപ്പം രണ്ടെണ്ണത്തിൻ്റെ ആയിരിക്കണം നാല് സീറ്റുള്ളതിൻറ്റെം ആറ് സീറ്റുള്ളതിൻറ്റെം റേറ്റ്കൾ ഒന്ന് അറിയിക്കുക അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം ഞങ്ങൾക്ക് ഒരാഴ്ച്ചത്തെ പ്രോഗ്രാമുണ്ട് ഒരാഴ്ച്ചത്തേക്ക് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്യാനുദ്ദേശിക്കുന്നത് അപ്പോൾ അത് അനുസരിച്ച് നിങ്ങളുടെ റെയിറ്റ്കളൊന്ന് അറിയിക്കുക